കുടുംബത്തിലെ സ്ത്രീകൾ എങ്ങനെ മത്സ്യബന്ധനത്തിന് സഹായിക്കുക എന്ന് ചോദിച്ച് കഴിഞ്ഞാല് നമ്മള് പുരുഷന്മാരാണ് മെയിൻ ആയിട്ട് കടലിൽ പോകുന്നത് മിക്കവാറും അല്ല എല്ലായിടവും അങ്ങനെയാണ് കടലിൽ പോകണ ഒക്കെ പുരുഷന്മാരായിരിക്കും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കടലിൽ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് പിന്നെ ആ വള്ളത്തിൽ ഇരിക്കാനും പിന്നെ കടല് എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടന്നായിരിക്കും തിരകൾ കൂടുക അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് അത് ഓവർ അവർക്ക് അത് തടയാൻ ഉള്ള അല്ലെങ്കിൽ അതിനോട് പെട്ടെന്ന് ഈ അംഗീകരിച്ച് പോകാനോ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്ന് ഉള്ളൊരു ഇത് പെട്ടന്ന് സ്ത്രീകൾക്ക് പാറ്റില്ല ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളൊക്കെ കടലില് കിടന്ന് കിടക്കേണ്ടി വരും അങ്ങനെ ഉള്ള അവസ്ഥകളിൽ ഒക്കെ സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവര് കടലില് ഇപ്പൊ അവര് കടലിൽ മറ്റേ പുരുഷന്മാർ കടലിൽ പോയി വരുമ്പോൾ സ്ത്രീകൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവരുടെ ആ മീന് കറക്റ്റായിട് അവിടം വിറ്റ് കൊടുക്കുക പിന്നെ വലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരെ ചോ വലയൊക്കെ നേരെ ആകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകൾക്ക് പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റുക ആ പിന്നെ ഈ സാ പൊതുവെ മത്സ്യബന്ധനത്തിന് ആണുങ്ങൾ ആയത്കൊണ്ടും പിന്നെ അവർക്ക് ഈ പുഴകളിലും ഒക്കെ പോയിട്ട് മീൻ പിടിക്കാൻ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കടലിൽ പോകുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യം ആയത് കൊണ്ടാണ് പിന്നെ പൊതുവേ അവര് പോവാത്തത്